ഹലോ ആ അതെ ആ ഓക്കെ ഓക്കെ ഏതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതിൽ നിങ്ങൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് കളറും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് വരുന്നത് ഒരു എട്ടാവും എട്ട് എട്ട് ലാക്ക് ആവും അങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ പെട്രോളിൽ ഉണ്ടാവും അതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത് മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ ആ പതിനഞ്ച് പതിനേഴ് ലെവൽക്കൊക്കെ നമ്മൾ മൈലേജ് പറയുന്നത് ആ അതെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മറ്റേ റൊക്കമായിട്ടാണോ ക്യാഷ് അടക്കാൻ ഉദ്ദേശിക്കുന്നത് ഡൗൺ പേയ്മെൻറ് ആകുമ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റിലെന്തായാലും ഒരു ഇരുപത് രൂപ അടക്കേണ്ടി വരും ഇരുപതിനായിരം അടച്ചിട്ട് പിന്നെ മാസം മാസം ആ ഇ എം ഐ ഇട്ട് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആ ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ആണ് മലപ്പുറം നമ്മളെ മുട്ടിപ്പടി അവിടെയൊക്കെ അറിയുമോ ആ അവിടുന്ന് ആ അവിടെത്തന്നെയാണ് അവിടെ എത്തിയിട്ട് ചോദിച്ചാൽ മതി നമ്മൾ കട ആപ്പ ഹോണ്ട ചോദിച്ചാൽ മതി അപ്പം നിങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അതേക്കാലം ഒന്നുകൂടിയും ബെറ്ററ് ആവുക അപ്പം വന്ന് ഒന്ന് കണ്ട് ടെസ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഓക്കെ നാളെ നിങ്ങൾക്ക് ഏകദേശം എത്ര എപ്പോളാണ് വരാൻ കഴിയുക എന്ന് പറയാൻ പറ്റുമോ നമ്മൾ അഞ്ച് അഞ്ചര ആ ഓക്കെ നമ്മൾ ചോദിച്ചതെന്ന് വെച്ചാൽ ആറ് മണിക്ക് നമ്മൾ കട ക്ലോസ് ചെയ്യും ആ അതുകൊണ്ട് ചോദിച്ചതാ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പോലെ ചെയ്യാം നിങ്ങളേതായാലും ഒന്ന് വിളിച്ചിട്ട് വരീ മറ്റ് കസ്റ്റമേസ് ഉണ്ടാവുമ്പോൾ ആ വിളിച്ചിട്ട് വരികയാണേൽ നമുക്ക് അനുസരിച്ച് ചെയ്യാം ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ താങ്ക് യൂ